ഹലോ ഇത് ഗുരുകുലം ഫുട്ബോൾ അക്കാഡമിയല്ലേ അക്ഷയ് സാറ് ഞാൻ പുതിയതായിട്ടു അഡ്മിഷനെടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു

എനിക്കൊരു പതിനഞ്ച് ഷാനിയ അടുത്താഴ്ച മുതൽ ജോയിൻ ചെയ്യാം

ഈവനിംഗ് ബാച്ചിലേക്ക് മതി ആ ഈവെനിംഗ് ബാച്ച് എത്രമണി തൊട്ടായിരിക്കും

ആ ഓക്കേ അപ്പോൾ തീരുമ്പോൾ ആ ഓക്കേ ആ ആ അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ ഓക്കേ ആ ഓക്കേ അപ്പം അഡ്മിഷൻ ഫീസെത്രയായിരിക്കും വരുക ആ ഓക്കേ

ആ ഞാൻ സ്കൂൾ ടീമിലുണ്ട് ആ കയ്യിലുണ്ട് ഞാനൊരു അടുത്താഴ്ചയൊരു പതിനാറാം തിയതി പതിനഞ്ച് ആ ഓക്കേ സർ ആ ഓക്കേ ആ ഓക്കേ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ പാരെന്റ്സിനെ കൊണ്ടുവരണോ ആ ആ ഓക്കേ ആ ഓക്കേ താങ്ക് യൂ ആ ആ ഓക്കേ താങ്ക് യൂ ആ ശരി താങ്ക് യൂ